വൻകിട കാർഷിക സംരഭങ്ങളിൽ ഗ്രാമീണ മേഖലയിൽ ചെറുകിട കർഷകരെ കർഷകരെ ബാധിക്കുന്നത് ഈ വൻ കിടകളുള്ളവർ ഒരുപാട് കുറഞ്ഞ അളവിൽ കുറഞ്ഞ പൈസയ്ക്ക് ചെറുകിട കർഷകരേക്കാളും ഒന്നുകൂടി കുറഞ്ഞ പൈസയിൽ സാധനങ്ങൾ കൊടുക്കും ചെറികിടക്കാർ ഒരെണ്ണം വിൽക്കുന്ന പൈസയിൽ ആയിരിക്കും അവർ മൂന്നെണ്ണം വിൽക്കുന്നത് അപ്പോൾ തികച്ചും കാരണം അവരുടേൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അപ്പം ആ അവർ അത് അങ്ങനെ അവർ ചിലപ്പം മൂന്ന് രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ ആയിരിക്കാം അഞ്ച് രൂപയ്ക്ക് വിൽക്കുന്നത് മറ്റവർ അത് മൂന്ന് രൂപയ്ക്ക് വാങ്ങിച്ചാലും ലാഭം കിട്ടുമ്പോൾ കിട്ടട്ടേ എന്നു കരുതി പത്ത് രൂപയ്ക്ക് വിൽക്കാം അപ്പോൾ അങ്ങനെ ആണ് പൈസ കുറച്ചും ആണ് ചെറുകിട കർഷകരെ അത് ബാധിക്കുന്നത്